നമ്മളെ നാട്ടില് ഒരുപാട് കുട്ടികളിപ്പോൾ പണിയെടുക്കുന്നുണ്ട് അവർ പഠിക്കേണ്ട പ്രായത്തിൽ പണിക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അവരെ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പലരും വീട്ടുപണിക്കൊക്കെ പോകേണ്ടി വരുന്നുണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ പല പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വീട് പണിക്ക് പോകുക കടകളിൽ പോയി നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആൺകുട്ടികൾ ആണെങ്കിൽ വല്ല വർക്ക് ഷോപ്പുകളിൽ പോയി നിൽക്കുക ഹോട്ടലുകളിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുക അതുപോലെ പഞ്ചർ കടകളിൽ പോയി നിൽക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ കാറ്ററിംഗ് പണിക്ക് പോകുക അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോൾ അവർക്ക് വീട്ടിലെ സാമ്പത്തിക ശേഷി ഇല്ലായ്മ കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു വിഭാഗം പേര് എന്നു പറയുന്നത് വീട്ടിൽ ആരും നോക്കാൻ ഇല്ലാത്തവരും വേറെ ഒരു വഴിയില്ലാത്തവരും ആണ് അങ്ങനെ കുറച്ച് ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ കുട്ടികൾ നമ്മൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളുടെ ഈ വരും തലമുറയാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ പണിയെടുത്തും നശിച്ചു പോകുന്നത് അവരുടെ ഭാവിയാണ് നശിച്ച് പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ കുട്ടികളെയൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി അവരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനു വേണ്ടി ഇപ്പോൾ നമ്മളുടെ സർക്കാർ തന്നെ പ്രവർത്തിക്കണം അതിനിപ്പോൾ കുട്ടികളെയൊക്കെ പഠിക്കാതെ പണിക്ക് പോകുന്ന കുട്ടികളെ കണ്ട് പിടിച്ച് അവരെ സ്കൂളുകളിൽ വിടണം അവരെ സാമ്പത്തിമായിട്ട് സർക്കാരുകൾ സഹായിക്കണം അതുപോലെ നമ്മൾ നാടുകളിലെ ഓരോരോ ട്രസ്റ്റുകളോ അല്ലെങ്കിൽ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഇവർക്ക് വേണ്ട സാമ്പത്തികശേഷി നൽകുകയും അവരെ പഠിക്കാൻ വിടുകയും ഒക്കെ ചെയ്യേണ്ടത് ഉണ്ട്